എൻ്റെ പ്രിയപ്പെട്ട സിനിമ താരങ്ങളാണ് മോഹൻലാൽ പൃഥ്വിരാജ് അതുപോലെ തന്നെ തമിഴില് ധനുഷ് ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ ടോം ഹാങ്സ് ക്രിസ്റ്റിൻ ബെയ്ൽ ഇവർ അത്ര പേരാണ് എനിക്ക് ഏറ്റോം പ്രിയപെട്ടവരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ കാര്യോന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം തന്നെ സിനിമയുടെ പ്രത്യേകതാന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസിലാവുന്ന രീതിയിൽ സാധാരണ ഒരു തനിമയോട് കൂടി ഉൾ ഉള്ള സിനിമയാണ് ഇവരുടെ എല്ലാത്തിൻ്റെയും ഇവരെല്ലാവരും ചെയ്യുന്നത് അത് പ്രധാനമായിട്ടെടുത്ത് പറയാൻ പറ്റുന്നെരു സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിൻ രചിച്ച ആടുജീവിതം ബ്ലെസ്സി തിരക്ക തിരശീലയിൽ സിനിമയായിട്ട് കൊണ്ട് വന്ന സമയത്ത് നായകൻ ആരായി ആരാകണം എന്നുള്ള കാര്യം ഒരു ചോദ്യമായിട്ട് വന്നിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരുവായിട്ട് ബ്ലെസി കോണ്ടാക്ട് ചെയ്യുന്നു അവസാനം പൃത്വിരാജ്ന്ന് പറയുന്ന നടൻ്റെടുത്തേക്ക് ഈയൊരു നജീബെന്ന് പറയുന്ന ഒരു കാരക്ടർ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വച്ച് വല്ലാത്തോരു ഡീപ്പായിട്ടൊരു അഫെക്ഷൻ അതായത് ഒരു ആത്മബന്ധമാണ് നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും അത് പോലെ തന്നെ ആ സിനിമ നടനായ പൃഥ്വിരാജിനും തോന്നിയത് ഇവർ രണ്ടു പേരും തമ്മിലുള്ള മാനസിക ആ അടുപ്പം തന്നെയാണ് ആ ഒരു സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറാൻ വേണ്ടീട്ട് ഏറ്റവും വലിയ കാരണം ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ പുസ്തകം സിനിമയാക്കി വരുമ്പോൾ കേവലം ഒരു രണ്ടര മണിക്കൂറിനകത്ത് വെച് കാണിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ തീയേറ്ററിൽ കണ്ടിട്ടുള്ളു എന്നുള്ള കാര്യമാണ് അപ്പം ആ ഒരു കേരക്ടറിനെ തിരശീലയിലേക്ക് കൊണ്ട് വരാൻ വേണ്ടീട്ട് പൃത്വിരാജ് എന്ന് പറയുന്ന നടനെടുത്ത ഒരുപാട് കഷ്ടപ്പാടുകൾ സഹനങ്ങൾ യഥനകളെക്കെ നമ്മൾ പല പല അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂകളും അതുപോലെ തന്നെ ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ എത്രത്തോളം തൻ്റെ ശരീരത്തിൻ്റെ ആ വണ്ണം കുറച്ച് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു നല്ല തേജസോത്ത ശരീരവും കാര്യങ്ങളും ഒക്കെ നശിപ്പിച്ച് കൊണ്ട് ഒരു ടോർച്ചർ ചെയ്തുകൊണ്ട് ആ ഒരു സിനിമയിൽ അഭിനയിക്കാന്നുള്ള കാര്യം നമ്മൾ ആ ഒരു ചിത്രത്തിൽ കൂടെ നമ്മൾ കണ്ടതാണ് അതായത് നജീബ് എന്ന് പറയുന്ന ആ ഒരു കാരക്ടറ് ആ മരുഭൂമിയിൽ അനുഭവിച്ച അതെ യാചനയും യാഥനയും നമ്മളീ കാണുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടീട്ട് തന്നെയാണ് പ്രിത്വിരാജ് എന്ന് പറയുന്ന നടൻ അത്രക്കും ചെയ്തത് അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റോം പ്രിയപ്പെട്ട ക്യാ കാരക്ടർ തന്നെയാണ് ആ ആ നജീബെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹോളിവുഡ് എടുത്ത് പറയുവാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ബെയ്ലും ടോം ഹാങ്സും ഈ പൃത്വിരാജ് ഒരു സിനിമയ്ക്ക് വേണ്ടീട്ട് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമക്ക് വേണ്ടീട്ട് മാത്രമാണ് ഈ ശരീരത്തിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൂടെ ഉണ്ടാകുക ഒക്കെ ചെയ്തേ പക്ഷേ ക്രിസ്ത്യൻ ബെയ്ലിനെയും ടോം ഹാങ്സിനെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്ലോബലായിട്ട് അഭിനയിക്കുന്ന നായകന്മാരുടെ ഓരോ ഓരോ ചിത്രങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയോടുള്ള ഒരു വല്ലാത്ത അടങ്ങാത്തൊരു പ്രണയമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണത്തിന് വേണ്ടീട്ടോ അല്ലെങ്കിൽ പദവിക്ക് വേണ്ടീട്ടോ ചെയ്യുന്ന ഒരു സിനിമയല്ല ബട്ട് അങ്ങനെ ചെയ്യുന്നോരും ഇല്ലാന്നല്ല പറയുന്നത് അങ്ങനെ ചെയ്യുന്നോരും ഉണ്ട് പക്ഷേ ഞാൻ ഈ എനിക്ക് ഏറ്റോം ഇഷ്ടപെട്ട പൃത്വിരാജ് ടോം ഹാങ്സ് ക്രിസ്റ്റിൻ വൈൽ മോഹൻലാൽ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരിക്കലും പണത്തിനോടുള്ള ആക്രാന്തം കൊണ്ടല്ല സിനിമ ചെയ്യുന്നത് അടങ്ങാത്ത പ്രണയമാണ് അവർക്ക് സിനിമയോട് എന്നുള്ള കാര്യം തന്നെയാണ് അപ്പം ഇനിയും അവർ ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട നായകന്മാർക്ക് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ വേണ്ടീട്ടുള്ള കഥാപാത്രങ്ങൾ അവരെ തേടി വരട്ടെ അവർക്കത് നല്ല രീതിയിൽ ചെയ്ത് ചെയ്യാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ളോരു ആശംസകളോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്